എൻ്റെ ബാല്യകാല സ്മരണകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് അതായത് പണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബാധ്യത കാര്യങ്ങൾ ഒന്നുമിലാണ്ട് നമുക്ക് അതായത് കുട്ടികളൊത്ത് അതായത് നമ്മുടെ ബാല്യകാലത്ത് കളിക്കാനും ചിരിക്കാനും പിന്നെ നമുക്ക് അവരുമായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും പല പല കഥകൾ പറയാനും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മേന്റെയും അച്ഛന്റെയും കൂടെ എപ്പോഴും ഇങ്ങനെയുണ്ടാകും അതായത് പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രുചികരമായ ഭക്ഷണങ്ങളൊക്കെ അമ്മയും അച്ഛനും അമ്മേയൊക്കെ ഉണ്ടാക്കി തരും പിന്നെ അതൊക്കെ തന്നെ നമ്മുടെ വലിയൊരു ബാല്യകാല സ്മരണകളാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒന്നാണ് നമ്മുടെ ബാല്യകാല സ്മരണകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതൊക്കെ ഇപ്പോഴും സവിശേഷമായിട്ട് തോന്നുന്നത് പിന്നെ അതേപോലെതന്നെ അതായത് നമ്മൾ കൂട്ടുകാരോടൊത്ത് കളിക്കുന്നതും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് അതായത് മഴ നനഞ്ഞ് സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ പോകുന്നതും സ്കൂളിൽ ഒരുമിച്ചിരിക്കുന്നത് പഠിക്കുന്നതും ഒക്കെ വലിയൊരു അതായത് വലിയൊരു ബാല്യകാലസ്മരണകൾ തന്നെയാണ്